നമ്മുടെ പ്രദേശത്ത് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിച്ച ടീമുകളില്ല പക്ഷേ ഇങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ സ്കൂളിൽ തന്നെ പല കുട്ടികൾക്കും പല കായികപരമായ കഴിവുകളുണ്ട് അവിടെ വളർത്താനുള്ള ആൾക്കാരില്ലെന്നാണ് അതാണ് പ്രശ്നം ഇവിടെ സ്കൂളിൽ പല കുട്ടികളും ഫുട്ബോളുണ്ടല്ലോ ഫോർട്സ് സ്കൂൾ തലത്തിൽ മത്സരിക്കുന്ന ടീമുകളുണ്ട് പിന്നെ ഇവിടെ പലരും ഈ ഫുട്ബോൾ പ്രേമികൾ പ്രേമം ഈ ഫുട്ബോൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ ബാസ്ക്കറ്റ്ബോൾ റണ്ണിങ്ങ് അങ്ങനെ പലതും ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇവർ ഇൻട്രസ്റ്റഡായിട്ടുള്ള ഫുട്ബോൾക്കാരാണ് ഇവിടെ ഞാനും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇവിടെ ടീമുകൾ ടീമുകളുണ്ട് പക്ഷെ അന്താരാഷ്ട്ര തലത്തിലൊന്നും പോകാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല അതേപോലെതന്നെ ഇപ്പം ബാഡ്മിൻ്റൺ ഇവിടെ ഇവിടെ കൂടെ ഇവിടെ കൂടെ ഉള്ള എല്ലാവരും കളിക്കുന്നു ഇവിടെ കോർട്ടുകളുണ്ട് ഇപ്പോൾ ഇവിടെ കളിക്കുന്നവരായിരുന്നാലും ഇവർ അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളും അവർ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല അതേപോലെതന്നെ ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇവിടെ ഗ്രാമങ്ങളിലെ അങ്ങോട്ട് രണ്ട് അപ്പുറത്തെ അടുത്തുള്ള ഗ്രാമത്തിലുള്ളവരുടെ ടീമുകൾ ഇങ്ങനെ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലാതെ ദേശീയതലത്തിൽ അങ്ങനെയൊന്നും മത്സരിക്കാനുള്ള അവസരം ഇങ്ങനെയുള്ള കിട്ടിയിട്ടില്ല അതേപോലെതന്നെ ഈ ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോളായിരുന്നാലും അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ മത്സരിച്ച് പങ്കെടുത്തവരായിരുന്നാലും ഇപ്പോൾ ഒരുതവണ തോറ്റുപോയി അടുത്ത തവണത്തേക്ക് പലരും അവരെ അവരെ പ്രോത്സാഹന സംഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം അതുകൊണ്ടുതന്നെ അവർ അടുത്ത തവണ വരാതിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ ബാസ്ക്കറ്റ്ബോളെന്നു വെച്ചാൽ ഇവിടെ അധികം കണ്ടു വരുന്നില്ല പക്ഷേ എന്നാലും ഇപ്പോഴത്തെ പല സ്കൂളുകളിലും അതിനുവേണ്ടിയുള്ള പ്രത്യേക കോർട്ടുകൾ വരെ നിർമ്മിച്ചു തരുന്നുണ്ട് അതേപോലെതന്നെ ഇവിടെ ആ അതിനുവേണ്ടി ഒരു ടീം സ്കൂൾ കുട്ടികളാണ് അന്താരാഷ്ട്ര ലെവലിൽ മത്സരിച്ച് വരുന്നുണ്ട് പിന്നെ ആ ആ മത്സരിച്ച അത് അതൊരു ഗ്രേസ് മാർക്കായിട്ടാണ് സ്കൂൾ തലത്തിൽ അവരെ കാണുന്നത് ഈ ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു ഗെയിം പാസ്സാവുകയെന്നു വെച്ചാൽ ഒരു സ്കൂൾ തലത്തിൽ ഇങ്ങനെയെടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒന്നാണ് അതേപോലെതന്നെ ഈ ദേശീയതലത്തിൽ മത്സരിക്കാൻ സ്കൂൾ വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പം ദേശീയതലത്തിലുള്ള മത്സരം സ്പോർട്സായിരുന്നാലും ഈ സ്പോട്സിൽ തന്നെ റണ്ണിംഗ് ലോങ്ങ് ജമ്പ് അങ്ങനെ ടീമായിട്ടുപോയി മത്സരിച്ച് ടീം ടീമിൽ സ്കോർ നേടി കപ്പായിട്ട് കൊണ്ടുവരുന്നവരുണ്ട്